എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ആണ് ഇപ്പോൾ ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹെയറോയിൽ ഒരു കെമിക്കലായിട്ടുള്ള ഹെയർ ഓയിൽസ് ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽസുണ്ട് നമ്മൾ കൂടുതലയിട്ട് യൂസ് ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഓയിൽ ആണ് അത് ഇവിടെത്തന്നെയുളൊരു ചേച്ചിയാണ് നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു തലവേദന എനിക്കുണ്ടായിരുന്നു അപ്പം അത് ഇപ്പോൾ മാറിയിട്ടുണ്ട് അത് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതു കൊണ്ടാണ് തലമുടി നരക്കാണ്ടിരിക്കുക നല്ല വൃത്തിയായിട്ടിരിക്കുക നമുക്ക് താരനും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതു കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് നല്ലൊരു ഇതാണ് ഇപ്പോൾ ചിലർക്ക് ഹെയർ ഓയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ തല മുറിയുക തലയിൽ താരൻ വരുക അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതൊന്നും ഇതിലില്ല അപ്പോൾ നല്ലൊരു പ്രോഡക്ടാണ് ഞാൻ ഇവിടുത്തെ ചേച്ചിയുടെ അടുത്തു നിന്ന് വാങ്ങുന്നത്